പ്രദേശിക സ്ഥലങ്ങള് പറഞ്ഞാൽ സ്ഥലങ്ങള് പറഞ്ഞാൽ പഞ്ചായത്ത്കള് മുസ് മുൻസിപ്പാലിറ്റി എന്നൊക്കെയാണ് പിന്നെ ഇവിടുത്തെ എം പി മാരായിരുന്ന കുഞ്ഞാലിക്കുട്ടി ബെഷീറെന്ന് കോരകേ നമുക്കിട്ട് കുറെ കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് പാലം ഇതാക്കുക റോഡ് ടാർ ചെയ്യലും പിന്നെ കുടിവെള്ളത്തിന് വേണ്ടി കുറെ സഹായിച്ചിട്ടുണ്ട് പിന്നെ സ്കൂള്കൾക്ക് കെട്ടിടത്തിന് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങള് എംപിമാര് ചെയ്യ്തിട്ടുണ്ട് അതായിത് വോട്ട് വോട്ടിങ്ങിലൂടെയാണ് മറ്റേ ഇവിടത്തെ സ്കൂളിൽ നിന്നാണ് ഉണ്ടാവല് കുറെ മാഷ്മ്മാര് ഉദ്യോഗസ്ഥരാണ് വോട്ടിങ്ങെടുക്കല് ജനങ്ങളുടെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരിങ്ങനെ ഉയർന്നുവന്നത് ഇവർ കുറെ കുറെ കാര്യം നമുക്ക് വേണ്ടി ചെയ്യ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് പോലെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വരെ സഹായിച്ചിട്ടുണ്ട് കുറെ ഫണ്ട്കള് പോലെ ഓലവെക്കാൻ അനുവദിച്ചിട്ടുണ്ട് ഓലവെക്കാനന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തൊക്കെയാണ് അവകാശമുള്ളത് അതൊക്കെ അവർ നമുക്ക് സാധിച്ച് തന്നിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടേലും ഇവരുടെ അടുത്ത് പോയാൽ അവരത് ശരിയാക്കി തരും